ഹലോ അല്ലെ ഞങ്ങൾ ഒരു പത്ത് കുഴിമന്തി ഓഡർ ഇട്ടിട്ടുണ്ടാരുന്നു ചെറിയൊരു ഫംഗ്ഷനു വേണ്ടിയാരുന്നു അപ്പം നമുക്ക് ഇപ്പം ഡെലിവറി അതൊരു ഈ ഞങ്ങൾ ഓഡറ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുവരെ അതിന്റെ അപ്ഡേഷനൊന്നും അറിയുന്നില്ല അതുകൊണ്ടാണ് വിളിച്ചത് അത് ഓഡറ് സീകരിച്ചിട്ടുണ്ടായിരുന്നൊ അവിടെ അതോ ഡെലിവറി ബോയ് വല്ലതും അറ്റൻ്റ് വല്ലതും ചെയ്തോ ഇല്ലയോന്നറിയാന് വേണ്ടിയായിരുന്നു ഇവിടെ കോഴഞ്ചേരിയിൽത്തന്നെയായിരുന്നു കോഴഞ്ചേരിയിൽ നിന്നൊരു മൂന്ന് കിലോമീറ്റര് ഡിസ്റ്റന്സ് മാത്രമുള്ളായിരുന്നു നമുക്കൊര ഫംഗ്ഷനാണ് അത്യാവശ്യമായിരുന്നു അതുകൊണ്ടാണെ ആ ഒന്ന് നോക്കിയിട്ടൊന്ന് അല്ല അത്യാവശ്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അതൊന്ന് ഡെലിവർ ചെയ്യാൻ അതെന്താണെന്നറിയുമോ നിങ്ങളത് പാക്കിങ്ങാക്കിയോ എന്നറിയാന് വേണ്ടിയായിരുന്നു കാരണം വെച്ചാൽ നമ്മൾ ഫാമിലീസൊക്കെ ഉണ്ടാരുന്നു ഇപ്പം ചെറിയൊരു ഫംഗ്ഷൻപോലെ ഫാമിലീസിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതറിയാന് വേണ്ടിയാണ് സ്റ്റാറ്റസ് ഡെലിവറി സ്റ്റാറ്റസൊന്നും ആയിട്ടില്ല ഇതുവരെ അതുകൊണ്ടാണ് ഷെഫോണ് വര്ക്ക് ഒണ്ടെന്ന് ഷെഫോണ് വര്ക്ക് മാത്രമാണിപ്പോള് കാണിക്കുന്നത് അപ്പം നമുക്കറിയാന് വേണ്ടി അതൊന്ന് അങ്ങോട്ട് ചോദിക്കാം ഒന്ന് നോക്കുമോ എന്നാൽ അറിയാന് വേണ്ടി ആയിരുന്നതുകൊണ്ടാണ് അല്ല ആ അതെ വേണ്ട അത്യാവശ്യമായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ഫംഗ്ഷനുണ്ട് ഇപ്പം ഇപ്പം ഓഡർ ചെയ്തിട്ടൊരു മണിക്കൂറായി ഇതുവരേ ബോവ ആരും വിളിച്ചിട്ടില്ല അതുകൊണ്ടാണ് അതറിയാന് വേണ്ടി മാത്രമായിരുന്നു അപ്പോൾ ഒന്ന് നോക്ക് ആ ഒന്ന് നോക്കിയാൽ മതി കുഴപ്പമൊന്നുമില്ല ഓഡര് നമ്പര് മുപ്പത്തെട്ട് ആ ഒന്ന് ആ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടല്ലെ ഡെലിവറി ബോയിയൊ ഉണ്ടല്ലൊ ആ ഓക്കെ ആ അതറിയാന് വേണ്ടിയാണ് വിളിച്ചത് താങ്ക് യു കേട്ടോ